നക്ഷത്രങ്ങള് പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മുടെ ജാതകം പൊരുത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഹിന്ദുക്കളാണ് കൂടുതലായിട്ടും നോക്കുന്നത് മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഒന്നും ഇങ്ങനെ നക്ഷത്രങ്ങള് നോക്കി ഒന്നും ചെയ്യാറില്ല പിന്നെ ചൊവ്വാദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെയും ഈ നക്ഷത്രങ്ങള് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഒരു കല്യാണം നടത്തണമെങ്കിൽ ഹിന്ദുക്കൾക്കാണെങ്കിലും ഒരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് കല്യാണത്തിന് പൊരുത്തമുണ്ടോ വധുവും വരനും തമ്മില് പൊരുത്തമുണ്ടോ അവരുടെ കല്യാണം നടക്കാൻ പാടുവോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ഈ നക്ഷത്രങ്ങള് ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ മറ്റ് ബർത്ത് ഡേ ഫംഗ്ഷൻസൊക്കെ യൂസ് ഈ ബർത്ത് ഡേ ചില കുട്ടികൾക്ക് ഇപ്പോൾ ജനിച്ച നക്ഷത്രത്തിലായിരിക്കും ബർത്ത് ഡേ ആഘോഷിക്കുന്നത് ചിലരിപ്പോൾ ജനിച്ച ദിവസത്തിലായിരിക്കും അപ്പോൾ അങ്ങനെ അതിനും നക്ഷത്രങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ നക്ഷത്രങ്ങള് യൂസ് ചെയ്ത് ബർത്ത് ഡേ ആഘോഷിക്കുന്നവരുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മള് നക്ഷത്രങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ മരിച്ച അടക്കും മരിച്ച ദിവസം ഇന്ന ദിവസം അടക്കാൻ പറ്റുവോ അങ്ങനെയൊക്കെ ഒരിതുണ്ട് ചിലവർ അങ്ങനെയും നോക്കാറുണ്ട് അതിനൊക്കെയാണ് നക്ഷത്രങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്